ഹലോ ട്രാവലിംഗ് ഏജന്സി അല്ലേ ഞാന് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു കാറ് ബുക്ക് ചെയ്തിട്ട് എന്റെ അടുത്തേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം ഞാനവരെയും കാത്ത് ഒരു കുറെ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇതുവരെ ഈ സ്ഥലത്ത് അവര് എത്തി ചേര്ന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഈ ട്രിപ്പ് ക്യാന്സലാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇത് ഒരു കുറെ സമയമായിട്ടു കാത്തു നിൽക്കുന്നു ഞാന് പിന്നേ ഇപ്പം വരും ഇപ്പം വരും വിചാരിച്ച് നില്ക്കുന്നു ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഒരു സേവനം എനിക്കാവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാനീ ട്രിപ്പ് ക്യാൻസൽ ചെയ്യ ക്യാൻസൽ ചെയ്യുകയാണ് ഇനി ഡ്രൈവറോട് നിങ്ങള് വരണ്ടാന്ന് പറഞ്ഞേക്കൂ